പാട്ടു പാട്ടിനെ കുറിച്ചു പറയുമ്പോൾ ഒരുപാട് ഉണ്ടാകും പറയാൻ കാരണം പാട്ട് ഓരോ പാട്ടിനും ഇപ്പം ഓരോ പാട്ടുകളും ഓരോ രീതിയിലാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠിച്ചു വരുന്ന പാട്ടുണ്ട് സ്പീഡിൽ ഉള്ള പാട്ടുകളുണ്ട് മെലഡി ആയിട്ടുള്ള പാട്ടുകളുണ്ട് ഡപ്പാ കൂത്തുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളോരോ പാട്ടിനും ഏതു പാട്ടാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതു പാട്ടാണോ നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ടിനു വേണ്ടുന്ന കറപ്ഷൻസുകളൊക്കെ നോക്കി അതിനകത്ത് എല്ലാ അതിൻ്റെ ഈണവും താളവും എല്ലാം നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻ ആയിട്ടു പാടാൻ സാധിക്കുമെങ്കിൽ പാടാൻ പാടിയാൽ നമുക്കു നന്നായിരിക്കും എന്നു തോന്നുന്നതാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് കുറച്ചു കൂടി എക്സ്ട്രാ നമ്മളുടെതായിട്ടുള്ള കഴിവുകൾ കൂടി ചേർക്കും അതായത് ഇപ്പം നമുക്ക് എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടാണ് ഞാൻ പാടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ കുറച്ചു കൂടി മെനഞ്ഞു നല്ല രീതിയിൽ അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കുന്ന തക്കവിധം നല്ല രീതിയിൽ ഞാൻ അതിനെ ഒന്നും കൂടി റീക്രീയേറ്റ് ചെയ്ത അതിനെ നല്ലതു പോ നല്ലതു പോലെ പാടി പാടി പാടിപ്പാടി നമ്മൾ അതിനെ നല്ല രീതിയിൽ കേൾ കേൾക്കാനായിട്ടു നോക്കും നോക്കും പിന്നെ ഒരു ഓരോ പാട്ടിനും ഓരോ പാ ഓരോ താളമുണ്ട് അപ്പം നമ്മളതിനകത്ത് എല്ലാം എല്ലാം ഒരുപോലെ പോയാലും ഒരുപാട് ഒവ് കൂടിയാലും പറ്റില്ല എന്നാൽ ഒത്തിരി കുറയാനും പാടില്ല അതുപോലെ മെയിൻ്റെയിൻ ചെയ്തു കൺട്രോൾ ചെയ്തു നമ്മൾ പാട്ടിനെ കൊണ്ടു പോകും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നോട് പറയുകയാണെങ്കിൽ ഞാനൊരു പാട്ടു ഞാനിപ്പോൾ ഒരു പാട്ട് സജസ്റ്റ് ചെയ്തു ഞാൻ അതു തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പാട്ടിനെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും ഇപ്പം എല്ലാവരും ഒരേ രീതിയിൽ പാടണമെന്നില്ല എന്നാലും എന്നിരുന്നാലും ഞാനെൻ്റെ ശൈലിയിൽ വരുമ്പോൾ അതെനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പാടുമ്പോൾ അതു വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും വേ വേറെ ഒരാൾക്ക് അതു കേൾക്കുമ്പോൾ അതിനെ ആസ്വദിക്കാൻ കഴി കഴിയ ആസ്വദിക്കാൻ തക്കവണ്ണം പാടി മെച്ചപ്പെടുത്തുന്നതായിരിക്കും അതിനു ശേഷം നമ്മളതിനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ പാടിക്കൊണ്ടിരിക്കും ഇപ്പം ഒരു മെലഡി സോങ് പാടുകയാണെങ്കിൽ അതിൻ്റെ ഭാവം നമ്മൾ അതിനകത്ത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടാലേ അതിൻ്റെ അപ്പം ആ മെലഡി സോങ് നമ്മൾക്കത് ഫീൽ ഫീൽ ചെയ്യത്തുള്ളൂ നമ്മളുടെ ഇഷ്ടത്തിന് എല്ലാം ഇതും ഒരുപാട് ഇട്ടാലും ഒരുപാട് സംഗതികളൊക്കെ ഇട്ടാലും അതിനൊരു കേൾക്കാൻ നമ്മൾക്ക് ഒരു അരോചകം ഇല്ലാത്ത രീതിയിൽ നമ്മളതിനെ വളരെ വൃത്തിയായി തന്നെ പാടും മറ്റുള്ളവരെ കേ കേൾവിക്കാർക്ക് അല്ലെങ്കിൽ എന്നെ ആസ്വദിക്കുന്നത് അല്ലെ എന്നെ ആ പാട്ട് എൻ്റെ പാട്ടിനെ ആസ്വദിക്കുന്ന ആളുകൾക്കു ഇഷ്ടമാകുന്ന വിധത്തിൽ നമുക്കതിനെ പ്രസൻ്റ് ചെയ്യാൻ സാധിക്കണം അത് അതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ട് ഇത്രയൊള്ളൂ ഉദ്ദേശിക്കുന്നതും മറ്റുള്ള എല്ലാ എല്ലാ പാട്ടുകൾ എല്ലാ പാട്ടുകളേ ഒരുപോലെ അല്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടു വന്ന് ആ പാട്ടിനെ നമ്മള് വ്യത്യസ്തമായിട്ടു മറ്റുള്ളവരുടെ മുന്നിലേക്കു കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കും എല്ലാ ഒരു നല്ല പാട്ടിലേക്കു നിങ്ങൾ ഞാൻ എന്നെ സംബന്ധിച്ചു ഞാൻ ഇപ്പോൾ നല്ലൊരു പാട്ട് സജസ്റ്റ് ചെയ്യാണ് സെലക്റ്റ് ചെയ്യുകയ്യാണെങ്കിൽ എൻ്റേതായ രീതിയിൽ ഞാനതിനെ രൂപപ്പെടുത്തി മെച്ചമായ രീതിയിൽ പാടി കേൾവിക്കാരിലേക്ക് എത്തിക്കുന്നതാണ്